ഞാനൊരു പ്രോഡക്റ്റായിട്ട് പാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വളരെ സ്യുട്ടാണ് വളരെ കറക്റ്റായിട്ടുണ്ട് അത് കളർ ഫെയ്ഡ് അല്ല നല്ല സ്റ്റിച്ചിങ്ങാണ് അത് ലൈഫ് ലോങ്ങ് നിൽക്കുന്നതാണ് എന്നാണെൻ്റെ വിശ്വാസം അതുകൊണ്ടു തന്നെ എനിക്ക് അത് വളരെയധികം ഇഷ്ടമായി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഞാൻ ഓൺലൈനായി വാങ്ങിച്ചത് വളരെ സ്യുട്ട് ആയിട്ടും ക്യൂട്ട് ആയിട്ടും എനിക്ക് ലഭിച്ചത് അതുകൊണ്ടുതന്നെ ഇനിയും ഇങ്ങനെ ഓൺലൈനിലൂടെ പർച്ചേയ്സ് ചെയ്യാൻ ഞാനിഷ്ടപ്പെടുന്നു നല്ല സ്റ്റിച്ചിങ്ങാണ് മാത്രമല്ല അതിൻ്റെ സ്മൂത്ത്നെസ്സും എനിക്ക് വളരെയധികം ഇഷ്ടമായി മെറ്റ് ആ തുണിയുടെ മെറ്റീരിയൽ വളരെ നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേ കമ്പനിയുടെ പ്രോഡക്റ്റ് എടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ പ്രോഡക്റ്റ് ഞാൻ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞുകൊടുക്കാനും മറ്റുള്ളവരെക്കൊണ്ട് ഈ പ്രൊഡക്ടുകൾ വാങ്ങിപ്പിക്കാനും ഞാനിഷ്ടപ്പെടുന്നു